ആ സാറേ എനിക്ക് നമുക്ക് മുന്നേ നമ്മൾ കണ്ടു പരിചയം ഒക്കെ ഉള്ളതാണ് എനിക്ക് ഒരു സ്ഥലം വീട് വയ്ക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു ഒരു അഞ്ച് സെൻ്റ് മതി ഒത്തിരി ഒന്നും വേണ്ട എനിക്ക് ഒരു വീട് വച്ചാൽ മതി അതിന് എന്തയെ ഉണ്ട് സാർ അതിൻ്റെ വില ഒക്കെ എങ്ങനെയാണ് എവിടെയാണ് നമുക്ക് കോട്ടയത്ത് എവിടെ എങ്കിലും കിട്ടുമോ അതിനെ കുറിച്ച് നമുക്ക് നോക്കണമെന്നുണ്ടായിരുന്നു അതിന് നമ്മൾക്ക് ഒത്തിരി ടൗണിൽ വേണ്ട ഇച്ചിരി ഉള്ളിൽ ഗ്രാമത്തിലായാൽ മതി ഇച്ചിരി ടൗൺ പോലെ വേണം അത് സാർ സാർ അതിന് ഭയങ്കര വിലയാണ് ടൗണിലൊക്കെ കേൾക്കുന്നത് നമുക്ക് അത്രയും സാമ്പത്തികം ഒന്നുമില്ല നമ്മൾക്ക് ഇച്ചിരി ഈ ഒത്തിരി ഉള്ളിലേക്കൊക്കെ കയറി ഉള്ളതാണ് നല്ലത് ഒത്തിരി സിറ്റിക്ക് അകത്തോട്ട് പോവേണ്ട അത് തെറ്റാണ് ആ അത് ശരി ഞങ്ങൾ ഇപ്പം നോക്കുന്നത് അങ്ങനെയാണ് ഇച്ചിരി ഉള്ളിലേക്ക് നോക്കി അവിടെ എവിടെ എങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കാമോ അമ്പലം വേണ്ട നമുക്ക് അമ്പലത്തിൻ്റെ ഇച്ചരെ റോഡ് ഇച്ചരെ നമ്മുടെ ഈ പഞ്ചായത്ത് റോഡ് പോലെയുള്ള റോഡ് ഒക്ക മതി ഞാൻ ഞാൻ ഒന്ന് വീട്ടിലൊന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനും ആയിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നമ്മൾക്ക് പറയാം റേറ്റൊക്കെ എങ്ങനെയാണ് അഞ്ചര ലക്ഷം രൂപയാകുമ്പോൾ അതിന് കുഴപ്പവുമില്ല സാറ് ഇപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മീഷൻ തരണമല്ലോ അങ്ങനെയാണല്ലോ അതിൻ്റെ ഇടപാട് അതിന് കുഴപ്പില്ല പക്ഷേ എനിക്ക് ഇച്ചിരി കൂടി ഈ അഞ്ചര എന്ന് പറയണ ഇച്ചിരി കൂടി ഒക്കെ കുറച്ചു തരാനൊന്ന് പറയാമോ അതിൽ പ്രധാനമായിട്ടുള്ള സൗകര്യങ്ങൾ വല്ല യൂണിവേഴ്സിറ്റി സ്കൂളുകൾ അങ്ങനെയൊക്കെ തൊട്ടടുത്ത് ഉണ്ടെങ്കിൽ അല്ലേ എനിക്ക് പ്രയോജനമുള്ളൂ അതെല്ലാം വേണം പക്ഷേ എനിക്ക് പഞ്ചായത്ത് റോഡിൽ എല്ലാം ഓടുന്ന ഒരു വണ്ടികളൊക്കെ എല്ലാം ഓടുന്നതായിരിക്കണം എൻ്റെ പൊന്നു ചേട്ടാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നോക്കുക ഇച്ചിരി കുറയ്ക്കാമോ എന്നൊക്ക ചോദിച്ചു കേട്ടോ അന്നാ

അപ്പം ശരി ഓക്കേ നമുക്ക് പിന്നെ നാളെ കാണാവേ